ഹലോ ഇത് രവി മൊബൈൽ ഷോപ്പ് ആണോ ആ അതെ സാർ ആയാ ആ അതെ അതെ എനിക്കൊരു മൊബൈൽ വേണ്ടിയിട്ടായിരുന്നേ ഇപ്പോളത്തെ ഏറ്റവും പുതിയൊരു തരം മൊബൈൽ വേണം എനിക്ക് അത് അടുത്തയാഴ്ച എൻ്റെ മകന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതൊരു എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് ഇപ്പം പുതിയ ട്രെൻഡ് ഇപ്പോളത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും എല്ലാം സൗകര്യം ഉള്ളൊരു മൊബൈൽ ആ ഹാ ഹാ ആണോ ആണോ അതെ ആ നല്ല ക്ലാരിറ്റി ഒക്കെ കിട്ടുന്നതാണോ ക്ലാരിറ്റി നല്ല ക്ലിയർ ആയിരിക്കും ഫോട്ടോസ് ഒക്കെ നന്നായിട്ട് എടുക്കാൻ റെക്കോർഡിങ്ങ് ഒക്കെ

ഓ അത് ശരി ആ ഈ ഏറ്റവും വില കുറവെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് അത് എത്ര വരെ എത്രയാണ് എമൗണ്ട് അതിൻ്റെ റേറ്റ് എത്രയായിട്ട് വരുന്നതെന്ന് പറയാമോ ആ അതാണ് ഏറ്റവും വിലക്കുറവ് ഒരു ആ അങ്ങനെ അല്ല മുപ്പതിനായിരത്തിലൊന്നും വാങ്ങാൻ പറ്റത്തില്ല അതുതന്നെ എന്തെങ്കിലും റിഡക്ഷൻ ആയിട്ട് പറയാമോ നമുക്ക് വാങ്ങേണ്ട റേറ്റ് നിങ്ങൾ പറയ് ആ അത് എത്ര നാൾ ഓഫർ എന്ന് എന്ന് തുടങ്ങുന്നത് എനിക്ക് അടുത്തയാഴ്ചത്തേക്ക് മതി അത് എന്നത്തേക്കാണ് തുടങ്ങുന്നത് ഓഫർ രണ്ടാഴ്ച വരെ നിലനിൽക്കും അല്ലേ ആ എനി ആ ഓഫർ ആവുമ്പോൾ നിങ്ങൾ എത്ര രൂപ വരെ ഇത് ചെയ്യുമെന്ന് മുപ്പതിനായിരത്തിനൊന്നും വാങ്ങാൻ പറ്റുകേല അതിൽ എത്ര കൂറച്ച് തരുമെന്ന് പറയ് ഓഫറിൽ വരുമ്പോൾ ഞാൻ എത്ര രൂപ ഇരുപത്തിയേഴോ മൂവായിരം രൂപയാണോ കുറയുക അതൊന്നും പറ്റുകേല ഒരു ഇരുപത്തഞ്ചിന് താഴെ ആക്കാനാണെങ്കിലേ ഞാൻ എനിക്ക് വേണ്ടതുളളൂ ഇരുപത്തഞ്ചിന് താഴെ ഒരു ഇരുപതിന് അല്ല അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഫോൺ എടുക്കേണ്ടി വരും ആ അപ്പോൾ നിങ്ങൾ തരുന്നത് ആണോ ഷുവർ ആണോ അത് ഓക്കെ ആ അങ്ങനെ ആണെങ്കിൽ അടുത്ത ആഴ്ചയാണ് എനിക്ക് കൊടുക്കേണ്ടത് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അപ്പം അടുത്ത ആഴ്ച ഒരു ദിവസം ഞാൻ വാങ്ങിക്കാനായിട്ട് വരാം അപ്പോൾ റിഡക്ഷൻ അന്നേരം വാക്ക് മാറിയേക്കരുത് ഓക്കെ ആ ആ എന്നാൽ ഓക്കെ എന്നാൽ ഓക്കെ സീ യു ഓക്കെ ഓക്കെ ശരി ശരി താങ്ക് യു